എനിക്ക് പ്രിയപ്പെട്ട ബൈക്കുകളെന്നു പറയുന്നത് ഒരെണ്ണം ഹിമാലയം പിന്നെ ഒരെണ്ണം ബുള്ളറ്റ് എനിക്കിഷ്ടമാണ് പിന്നെ ഡോമിനാർ പറഞ്ഞിട്ടൊരു ബൈക്കുണ്ട് അത് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ബി എം ഡബ്ല്യുടെ ഒരു ബൈക്കുണ്ട് ജി ത്രീ ടെൻ എന്നു ആണെന്നു തോന്നുന്നു അപ്പോൾ ഈ ബൈക്കുകളൊക്കെ എനിക്ക് ഇഷ്ടമാണ് ഇതിൽ എൻ്റെ സ്വപ്ന ബൈക്കെന്നു പറയുന്നത് ഇപ്പോൾ ചോദിക്കുവാണെങ്കിൽ ഹിമാലയം എന്നു തന്നെ പറയും അത് അതിൻ്റെ കാരണം എന്താണെന്നു വെച്ചാൽ ദൂര യാത്രയൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പം ദൂരെ യാത്രയൊക്കെ പോകാനായിട്ട് എപ്പോഴും ഏറ്റവും ഇരിക്കുമ്പോഴൊക്കെ സുഖവും നടുവിനൊക്കെ നല്ല എന്താ പറയുക പെട്ടെന്ന് ക്ഷീണവും തളർച്ചയൊന്നും അനുഭവപ്പെടാത്ത രീതിയിലുള്ള ഒരു വണ്ടിയാണ് ഹിമാലയ അതുപോലെ തന്നെ നല്ല മൈലേജുമൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ് പിന്നെ ബുള്ളറ്റും എനിക്കിഷ്ടം ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ് ബി എം ഡബ്ലിയുവൊക്കെ കുറച്ച് വില കൂടുതലാണ് ഹിമാലയ അതെ അപ്പോൾ ഇതെല്ലാം ദൂരെ യാത്രയ്ക്കും നല്ല സുഖപ്രദമായ വണ്ടികളാണ് അപ്പോൾ ഇപ്പം എൻറ്റൊരാഗ്രഹം പറയുകയാണെങ്കിൽ ഹിമാലയ വണ്ടിയിൽ കയറി ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പം ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കൂടി ഒരുപാട് ലഗ്ഗേജുണ്ടാകും നമ്മൾ കൂടുതൽ വലിയ യാത്രയൊക്കെ പോകുമ്പോൾ ഹിമാലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനടുത്തൊരു യാത്ര പോയാൽ തന്നെ ബൈക്കിൽ അവിടം വരെ എത്തി നമ്മൾ എല്ലായിടത്തും കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു മാസം എന്തായാലും ഏറ്റവും കുറഞ്ഞത് സമയമെടുക്കും അപ്പോഴത്തേക്കും ഒരു മാസത്തേക്കുള്ള നമ്മുടെ തുണിയും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടുമ്പോഴത്തേക്കൊരു വലിയൊരു പെട്ടിയോ അല്ലെങ്കിൽ ബാഗൊക്കെ കൊണ്ട് പോകേണ്ടി വരും കൊണ്ടു പോകാനും കൂടി ഉള്ള സൗകര്യം ഹിമാലയയിൽ ഉണ്ട് അപ്പം അതു കൊണ്ടാണ് എനിക്ക് അതിനോട് കൂടുതലായിട്ടുള്ളൊരു ഇഷ്ടം